ഇപ്പോൾ നമ്മുടെ പ്രദേശം അങ്ങനെ കലാപരമായി സൂക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ കൂടുതലായിട്ടും വിൽക്കാനും ഇതാക്കാനൊക്കെ നമുക്കിപ്പോൾ കൂടുതല് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ മിഠായി തെരുവ് തന്നെയാണ് അപ്പോൾ മിഠായി തെരുവില് നമുക്ക് ഇങ്ങനെ ഒരു ഷോപ്പോ കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കില് ഒരുപാട് ആൾക്കാര് വന്നുപോകുന്നൊരു സ്ഥലം തന്നെയാണത് അപ്പം അവിടെ അങ്ങനൊരു ഷോപ്പും കാര്യങ്ങളൊക്കെയിടുമ്പോൾ ആൾക്കാര് വരികയും നമ്മള് എന്താ പറയുക കലാകാരന്മാര് അതായത് കലാപരമായിട്ടുണ്ടാക്കുന്ന ഇപ്പോൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വിൽക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കാരണം അതുപോലെ ആൾക്കാര് വരുന്നൊരു സ്ഥലമാണത് അപ്പോൾ വാങ്ങാനായാലും വിൽക്കാനായാലും നമുക്കെളുപ്പത്തിൽ കഴിയുന്നൊരു ഇത് തന്നെയാണ് അപ്പോൾ മിഠായിത്തെരുവ് പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ബീച്ചിന്റെ സൈഡ് അവിടൊക്കെ കൊണ്ടു വെച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വിൽക്കാനും അതുപോലെതന്നെ വാങ്ങാനും ഒക്കെ ആളുകളെ കിട്ടാണ്ട് ഇരിക്കുന്നില്ല അപ്പോൾ ഓൾമോസ്റ്റ് കോഴിക്കോട് ആള് കൂടുന്ന സ്ഥലം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് കൂടുതലായിട്ടും നമ്മള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുവരുന്നത് മിഠായി തെരുവില് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ബെറ്ററായിട്ടും അവിടെ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്